നമസ്ക്കാരം എൻ്റെ പേര് അഭിഷ ഞാൻ ഇന്നലെ എൻ്റെ പേര് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാവല്ലിംഗിന് വേണ്ടിയിട്ട് നാളെ രാവിലെ നാലു മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ എനിക്ക് അവിടെത്തെ കുറേ നടപടി ക്രമങ്ങളും ആ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എനിക്ക് മൂന്ന് മണിക്കുതന്നെ എത്തേണ്ടതുണ്ട് അപ്പം അതിനുമുമ്പേ എനിക്ക് ഒരു അരമണിക്കൂർ മുമ്പേയെങ്കിലും അതായത് രണ്ടരയ്ക്ക് എനിക്ക് എയർപോർട്ടിൽ എത്തണം സോ അതുകൊണ്ടുതന്നെ എൻ്റെ ഇവിടെ എന്നെ ഒന്നരയ്ക്ക് വിളിക്കാൻ വരണം അപ്പം അതൊന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരിക്കൽക്കൂടി ഒന്നു വിളിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് താങ്ക് യൂ